ഇവിടെ ഇവിടെ എവിടെയെങ്കിലും അടുത്ത് ഓട്ടോ സ്റ്റാൻഡുണ്ടോ അങ്ങ് കുറച്ചു ദൂരെ ബത്തേരി വരെ പോകാനായിരുന്നു ബത്തേരി ചീരാള് വരെ എത്തണം ഓട്ടോയാണെങ്കില് ഇവിടെ ഓട്ടോസ്റ്റാൻഡുണ്ടെങ്കില് ഇവിടുന്നു ഓട്ടോ വിളിച്ചു പോയ വേഗം എത്തുമല്ലോ